ഹലോ ഇത് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ കസ്റ്റമർ കെയർ ഓഫീസ് അല്ലേ ഞാൻ താങ്കളുടെ പരസ്യം വഴി ആകർഷിതനാവുകയും അതുവഴി ഞാൻ ഫ്ലിപ്കാർട്ടിലൂടെ താങ്കളുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ പുതിയ ട്രിമ്മർ മേടിക്കുകയുണ്ടായി പക്ഷെ അതിൻ്റെ പരസ്യത്തിലും മറ്റും കാണുന്നത് അത് തൊണ്ണൂറ് മണിക്കൂർ ഒറ്റ ചാർജിൽ പ്രവർത്തിക്കുമെന്നാണ് പക്ഷേ എനിക്കൊരു മൂന്ന് മിനിറ്റ് പോലും എനിക്കത് ചാർജ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല കൂടാതെ അറുപത് മിനിറ്റും ഈ തൊണ്ണൂറ് മിനിറ്റും നൂറ്റിയമ്പത് മിനിറ്റും എല്ലാം ചാർജ് ചെയ്തിട്ടും എനിക്ക് ലഭിക്കുന്നത് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് അതുപോലെ അതിൽ ഒരുപാട് ഒരുപാട് ടൈപ്പിലുള്ള ഉപകരണങ്ങൾ അതിനോടൊപ്പമുണ്ടാകും അതുപോലെ ചാർജറുമുണ്ടാകുമെന്നൊക്കെ പരസ്യത്തിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ലഭിച്ചത് വെറുമൊരു ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് എനിക്കതിലൂടെ ഷേവ് ചെയ്യാൻ മാത്രമാണ് അതോടൊപ്പം കുറയ്ക്കാനുള്ള ഉപകരണങ്ങളൊന്നും അതിലില്ല അപ്പോള് അതിന് ആവശ്യമായ മാറ്റലുകൾ വരികയും മറ്റു കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നത് സൂക്ഷിക്കുകയും ചെയ്യണം ഇത് തിരിച്ചെടുക്കാനുള്ള റീടേക്കിംഗ് നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു